സ്കൂളിന് പുറത്തുള്ള ട്യൂഷൻ ഒരു തരത്തിൽ നല്ലതാണ് പക്ഷേ അത് ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് ആയിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് പത്താം ക്ലാസ് മുതൽ പ്ലസ് ടു ആ അങ്ങനെയുള്ള കുട്ടികൾക്കാണ് ട്യൂഷൻ്റെ ആവശ്യം വരുന്നുള്ളൂ അത് എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് നമ്മുടെ ഭാവി എന്താണെന്ന് മുന്നേ അറിയാൻ പറ്റില്ല നമ്മുടെ മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ് നമുക്ക് ഭാവിയെ പറ്റി ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ബാക്കി ഇപ്പം സ്കൂൾ കലാലയത്തിൽ ഇപ്പം ഒന്നാം ക്ലാസ് മുതൽ ഒരു ഒൻപതാം ക്ലാസ് വരെ നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ ഉള്ളതാണ് പഠിത്തത്തോടൊപ്പം രസകരമായ കളികൾ കൂട്ടുകാരോടൊപ്പം ഉള്ള നിമിഷങ്ങൾ അതൊക്കെ നമുക്ക് ആസ്വദിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതൊന്നും പിന്നീട് ഒരിക്കലും തിരിച്ചു ലഭിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ് അതുകൊണ്ട് ഒരു ഒരു പരിധി വരെ കുട്ടികളെ അവരുടെതായ രീതിയിൽ ക്ലാസിലെ ശ്രദ്ധിക്കുന്നുള്ള കുട്ടികൾക്ക് അവരുടെതായ രീതിയിൽ പഠിച്ചു മാർക്ക് നേടാൻ പറ്റും പിന്നെ നമ്മുടെ ഭാവി എന്താവണമെന്ന് തീരുമാനിക്കുന്ന ഒരു കാലഘട്ടം അതായത് പത്താം ക്ലാസ്സോ പ്ലസ് ടു എത്തുമ്പം അവർക്ക് ട്യൂഷൻ നൽകാം കാരണം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ ഭാവി ജോലി മുന്നോട്ടുള്ള പഠനം അതൊക്കെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ബാക്കിയുള്ള കുട്ടികൾക്ക് ക്ലാസ്സിന്നുള്ള വിദ്യാഭ്യാസം തന്നെ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം